ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക പാരമ്പര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് അതായത് ഇന്ത്യയില് പലതരത്തിലുള്ള സാംസ്കാര സംസ്കാര രീതികളാണ് ഉള്ളത് നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കില് വേറൊരു രീതിയും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കില് വേറൊരു രീതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൾച്ചറൽ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഉള്ളത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇവിടുള്ള എന്താ പറയുക ഡ്രസ്സിംഗ് രീതി തന്നെ വേറൊരു സംസ്കാര ഇത് എന്താ പറയുക നമ്മളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സിംഗ് രീതിയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാന്യമായ രീതിയിലുള്ള ഡ്രസ്സിംഗ് രീതിയും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പോൾ ഗുജറാത്ത് അവിടെയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ ഒരു നാടോടി ടൈപ്പ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അവരിങ്ങനെ ജുബ്ബയും അങ്ങനത്തെ എന്താ പറയുക നമ്മളിപ്പോൾ രാജാക്കന്മാര് ഭരിക്കുന്ന പോലെയുള്ള ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു സംസ്കാരങ്ങളിലൂടെയാണ് അവരൊക്കെ കടന്നുപോകുന്നത് അങ്ങനെ ഇന്ത്യയില് പലതര പല രീതികളിലും മാറ്റം വന്നിട്ടുണ്ട് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സംസ്കാരങ്ങളും എല്ലാകാര്യങ്ങളും അവര് കൊണ്ടുനടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടേതെന്ന് വെച്ചു കഴിഞ്ഞാൽ വ്യത്യാസപ്പെട്ട് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് നമ്മളുടെ ഇടയിൽ തന്നെ ഈ ആദിവാസി സമൂഹത്തിൽ മാത്രമാണ് ഇപ്പം അങ്ങനെ എന്താ പറയുക അതായത് സാരി ഉടുക്കുന്ന രീതിയിൽ തന്നെ ഒരു വ്യത്യസ്തതരം സാരി ഉടുക്കല് കണ്ടെത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി സമൂഹത്തിലും അവരൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടെത്തിയത് അതേ മറ്റു സംസ്ഥാനങ്ങളിലും ഇതേപോലെ പല രീതിയിലുള്ള വേറെ ജാതിയിൽ പെട്ട ആൾക്കാരൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ജാ അതായത് ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെയാണ് കൊണ്ടുവരുന്നത്